ആ അതേല്ലോ ഞങ്ങളിത് എവെർസ്റ്റാർ ക ഏജൻസിയാണ് നിങ്ങളാരാരുന്നു ആ ഓക്കേ സർ എന്തായിരുന്നു ഓ സീഫുഡ് ഐറ്റെംസ് ആണോ സർ ഞങ്ങള് മെയ്നായിട്ട് ചെയ്യ്ന്ന നമ്മുടെ ഇത് വരുന്നന്ന് പറഞ്ഞാല് ഇവിടെ കേരളത്തിലാണ് ഞങ്ങളുടെ ബ്രാഞ്ച് വരുന്നത് നമ്മള് ഓൾ കേരളയില് വർക്കുചെയ്യുന്നതാണ് ഈ പറഞ്ഞ സീഫുഡ് ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ സ്പെഷ്യലിറ്റി എന്ന് പറയുന്നത് നമ്മള് ഇന്ന് ഇപ്പോൾ സീഫുഡിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കാര്യം നോക്കുവാണെങ്കിൽ അത് വരുന്നത് കാലികട്ട് ആണ് ബീച്ചും കാര്യങ്ങളും എല്ലാം അടുത്തായത് കൊണ്ടും ഏറ്റവും കൂടുതല് ഫുഡിൻ്റെ വെറൈറ്റിസ് വരുന്നത് അവിടെയാണ് പ്രത്യേകിച്ച് സീഫുഡിൻ്റെ അവിടിപ്പം ആ അവിടിപ്പം കരിമീനാണേലും ഈവൻ അതുപോലെ തന്നെ ആലപ്പുഴയൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സീഫുഡിൻ്റെ ഏരിയയാണ് ആ കരിമീൻ പിന്നെ കൂന്തൾ അങ്ങനെയെല്ലാ ഫിഷിൻ്റെ ഐറ്റംസും വെറൈറ്റീസായിട്ടുണ്ടാക്കുന്ന ഒരു പ്ലേസ് ആണ് സാറിന് എവിടേക്കാണ് താല്പര്യം എന്നുവെച്ചു പറഞ്ഞാൽ നമ്മള് അറേഞ്ചുചെയ്ത് തരുന്നതാണ് ഓക്കേ അപ്പം സാറിന് കോഴിക്കോടാണോ വേണ്ടത് ആലപ്പുഴയാണോ വേണ്ടത് പക്ഷേ ആ ഓക്കേ സർ അത് നമുക്കുതന്നെ അറേഞ്ച് ചെയ്യാവുന്നതാണ് നമ്മളെല്ലാം അറേഞ്ചുമെൻറ്സും ചെയ്തുതരുന്നതാണ് ഇത് സാറിന് എത്ര ദിവസത്തേക്കാരുന്നു വേണ്ടത് ആ ഓക്കേ സർ ഞങ്ങളുടെ സ്പെഷ്യലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മള് പറയുവാണെങ്കിൽ സീ ഫുഡിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളിപ്പം ആലപ്പുഴയാണ് കൂടുതലും പ്രീഫറെയ്യുക അവിടെയാകുമ്പം നമുക്ക് സീ ഫുട്സായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും അതായത് കൂന്തൾ കരിമീൻ നെത്തോലി അങ്ങനെയെല്ലാ മീന്റേം ആ കറികളും വറുത്തതും ഫ്രൈയും അങ്ങനെയുള്ള എല്ലാം നമുക്കവിടെ അവൈലബിളാണ് അപ്പോൾ സാറിനെന്തൊക്കെ ഫുഡൈറ്റംസാണ് വേണ്ടതെ ആ അപ്പം സാറിന് എന്ത് ഓക്കേ സർ നമുക്കെ പാക്കേജ്സ് എല്ലാം അവൈലബിളാണ് എത്ര ദിവസത്തെക്കാന്നും കൂടിയും പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അറേഞ്ചെയ്യാവുന്നതാണ് ഇന്നിനിപ്പം ഇതിന് ഒരു റേറ്റ് വരുന്നത് പെർ ഡേ രണ്ടായിരം രൂപവച്ചാണ് വരിക കാരണം ടാക്സി ഫീസും ഫുഡും എല്ലാം കൂടി കൂടിയിട്ടാണ് ഓക്കേ ഓക്കേ സാറിന് ഇപ്പം ഫുഡൈറ്റംസെന്താണ് വെണ്ടേയ്ന്ന് സെലക്ട് ചെയ്ത് പറയുമോ ഞാൻ മെനുകാർഡ് സാറിൻ്റെ ഫോൺലേക്കയച്ച് തരാം വ് സീഫുഡിൻ്റെ ഓക്കേ ഓക്കേ ഓക്കേ സർ ആ ഓക്കേ സർ എല്ലാ അറേഞ്ച് ചെയ്ത് ഞാൻ വാട്സാപ്പെയ്തേക്കാം ഓക്കേ താങ്ക്യൂ